സ്ത്രീകളുടെ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെയധികം ദുഷ്കരമായ രീതിയിലൂടെയാണ് ഇന്നത്തെ കാലത്ത് കടന്ന് പോകുന്നത് പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് അവർക്ക് സ്വാധീനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിന്നും നേരിടുന്നുണ്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്നും അവർ നേരിടുന്നുണ്ട് എന്ന് എന്ന് ഉദാഹരണമാണ് ഇന്നത്തെ ഈ ലോകം ഇന്നത്തെ ആളുകളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറേണ്ട കാലഘട്ടമായിരിക്കുകയാണ് പെൺകുട്ടികൾ പഠിക്കട്ടെ പെൺകുട്ടികൾ നല്ല ഒരു നിലയിലെത്തട്ടെ ഇക്വാലിറ്റി തുല്യത ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്ന് വേണ്ടത് പക്ഷെ എന്നാൽ പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും അതൊന്നും അത്തരം പ്രായത്തികമായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് വളരെയധികം കഷ്ടപ്പാടുകളിൽക്കൂടെ തന്നെയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല കന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് എങ്കിൽ പോലും വളരെയധികം അവർ പഠിക്കുന്നുണ്ട് അവർ നല്ല മേഖലയിലേക്കെത്തിപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹോദരി അല്ലേ എൻ്റെ പെങ്ങൾ നല്ലൊരു മേഖലയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വളരെയധികം അത് ആഗ്രഹിക്കുന്നു അവൾ അവളെ അവൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് നൽകുന്നതാണ് ഞാൻ വളരെയധികം മാറ്റങ്ങൾ വരേണ്ട കാലഘട്ടത്തിൽ പോലും ഇന്നും പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നു എന്നതിന് വളരെയധികം സന്തോഷം അവർ നല്ല നല്ല മേഖലയിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സ് കൊണ്ടാണെങ്കിലും പ്രവർത്തികൾ കൊണ്ടാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളത് സത്യം തന്നെയാണ് അവർക്ക് പലയിടങ്ങളിലും പലയിടങ്ങളിലാണെങ്കിലും ഒട്ടനവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം വെല്ലുവിളികളെ നിഷ്പ്രഭമാക്കി കൊണ്ട് അവർ പഠനത്തിൽ മികവ് പുലർത്തുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ നൽകണം എന്നത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് പറയാനുള്ളത് എൻ്റെ സഹോദരി എന്നതിലുപരി സമൂഹത്തിലെ ഒരു സ്ത്രീ കരുത്ത് എന്ന നിലക്കാണ് ഞാൻ എനിക്കവളെ കാണുവാൻ സാധിക്കുന്നത് അവൾക്ക് വേണ്ട സമൂഹം അവൾക്ക് വേണ്ട സപ്പോർട്ട് കുടുംബത്തിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ സൈഡിൽ നിന്നാണോ ഉണ്ടാവുക ഇത് തന്നെ ചെയ്യും ഇത്തരം കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ സമൂഹത്തിനാവശ്യം എല്ലാവർക്കും തുല്യത വേണം എല്ലാവരും നല്ല നിലയിലെത്തണം എന്ന ആഗ്രഹം ആഗ്രഹം ഉണ്ട് എല്ലാവരും അതിന് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതിലൂടെ അവർക്ക് ജോലി നല്ലൊരു ജോലി നല്ലൊരു ഭാവി ഭാവിയിലെത്തിപ്പെടുവാൻ സാധിക്കും അവർ അതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൊടുക്കാം കാഴ്ചപ്പാടുകൾ മാറിയാൽ തന്നെ ലോകം നന്നാവും എന്നത് സത്യം തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അത് തന്നെ പെൺകുട്ടികൾ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പെൺകുട്ടികൾ അവരുടേതായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് നല്ലത് തന്നെയാണ് അത് വളരെയധികം പോസിറ്റീവായ ഒരു പോയിൻ്റ് തന്നെയാണ് പോസിറ്റീവ് മൈൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എവിടെയും എത്തിപ്പെടാം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് അത്രയും ആളുകൾ സ്ത്രീ എന്നും ഒതുങ്ങി ജീവിക്കേണ്ടവളാണെന്നുള്ള കാഴ്ചപ്പാട് മാറേണ്ട കാലമായിരിക്കുകയാണ് സ്ത്രീ എന്നാൽ അവൾ പറക്കേണ്ടവളാണ് എന്ന പറന്ന് നടക്കേണ്ടവളാണ് എഴുത്തുകാരുടെ സുഗതകുമാരിയെ പോലുള്ള എഴുത്തുകാരുടെ കാഴ്ചപ്പാടുകളെ നമ്മളിന്നും സപ്പോർട്ട് ചെയ്യണം അവരെ പോലുള്ള എഴുത്തുകാരെയാണ് നമുക്കിന്ന് ആവശ്യം സ്ത്രീയുടെ വിദ്യാഭ്യാസ ലംഘം വളരെയധികം ഇന്നും ഇനിയും ഉയർന്ന് വരാനുണ്ട് എന്നത് സത്യം തന്നെയാണ് അവരെ വളരെയധികം ഉയരത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു